ഗുഡ് മോണിങ് ആ എനിക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങണമായിരുന്നു എനിക്ക് കുറച്ച് ഓറഞ്ച് മാങ്ങ പപ്പായ അത്രയും വേണമായിരുന്നു

ആ അപ്പം ഈ മാങ്ങകളൊക്കെ എങ്ങനെയാ റേയ്റ്റ് ഒക്കെ എനിക്ക് നാട്ട് മാങ്ങ വേണമായിരുന്നു പിന്നെ കുട്ടികൾക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള മാങ്ങ അത് ഏതായിരിക്കും നല്ലത് അത് നല്ലതാണോ ഉം അതിന് നല്ല മധുരമൊക്കെ ഉണ്ടാവോ ആ ആ അപ്പം എനിക്ക് സാമ്പിൾ ഒന്ന് ടേയ്സ്റ്റ് ചെയ്ത് നോക്കാൻ തരണേ പിന്നെ എനിക്ക് പപ്പായ വേണമായിരുന്നു അ പപ്പായ അപ്പോൾ കിലോക്ക് ഒക്കെ എങ്ങനെയാ ആ ഓക്കെ അപ്പം ഇതിലേതാ ജ്യൂസ് അടിക്കാൻ നല്ലത് കുറച്ചുംകൂടെ ഓക്കെ എനിക്ക് ഓറഞ്ചുംകൂടെ വേണമായിരുന്നു അപ്പോൾ അതെങ്ങനെയാ വിലയൊക്കെ ഓക്കെ ജ്യൂസ് അടിക്കാൻ ഏതാ ഓറഞ്ചാ നല്ലത് ഓക്കെ അപ്പം അവിടെ വേറെ ഏതൊക്കെ തരത്തിലുള്ള ഫ്രൂസ് ഐറ്റംസാ ഉള്ളത് ഓക്കെ ഈ തണ്ണിമത്തങ്ങ അതിന് എങ്ങനെയാ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ നാല് കിലോ നൂറ്റിരുപത് രൂപക്ക് കിട്ടും അല്ലേ അപ്പോൾ എനിക്കത് വേണം പിന്നെ ഈ നാരങ്ങ ഐറ്റംസ് ഒക്കെയുണ്ടോ ആ നമുക്ക് ഇപ്പോൾ പിഴിഞ്ഞ് കുടിക്കാൻ പറ്റിയ രീതിയിലുള്ളതൊക്കെ അച്ചാറിടാൻ ഏതായിരിക്കും നല്ലത്

ഓക്കെ അതെങ്ങനെ കിലോക്കൊക്കെ ഓക്കെ അപ്പം എനിക്ക് പപ്പായ എനിക്കൊരു രണ്ട് കിലോ വേണം പിന്നെ ഓറഞ്ച് എനിക്കൊരു നാല് കിലോ വേണം അതുപോലെതത്തന്നെ മാങ്ങ എനിക്കൊരു മൂന്ന് കിലോ വേണം കുട്ടികൾക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാങ്ങ മതി പിന്നെ എനിക്ക് നാട്ട് മാങ്ങ വേണം അത് കുറച്ച് ഒരു രണ്ട് കിലോ എടുത്തേക്ക്

ഓക്കെ ഇവിടെ ഹോം ഡെലിവറിയൊക്കെ ഉണ്ടാവോ ഓക്കെ അപ്പം എനിക്ക് ഹോം ഡെലിവെറിയും കൂടിയൊന്ന് വേണമായിരുന്നു ഞാൻ വണ്ടി എടുത്തില്ല അപ്പോൾ എനിക്കും ഡെലിവറി ചെയ്തുതരണം ആ അതൊക്കെ നമ്മൾ തരാം ആ ഓക്കെ തരാം തരാം ഇവിടെ ഗൂഗിൾ പേയൊക്കെ അവൈലബിൾ അല്ലേ ഓക്കെ അപ്പം ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് വെജിറ്റബിൾ സെക്ഷനൊക്കെ അപ്പുറത്താണല്ലേ ഓക്കെ ഓക്കെ ഓക്കെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടോ ഓക്കെ ടാങ്ക് യു ഓക്കെ അപ്പം ഞാൻ അവിടെയാണല്ലേ ബില്ല് അടിക്കേണ്ടത് ഓക്കെ ഓക്കെ